ഭൂമിയുടെ ആകൃതി മണ്ണിൻ്റെ സവിശേഷതകൾ ഒക്കെ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യകാലത്തിൽ അപ്പോൾ അതായത് എന്നാൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ കൂടുതലും കൃഷിയും കാര്യങ്ങളും അതായത് ജൈവവള കൃഷി കാര്യങ്ങളൊക്കെയായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിനൊന്നും അത്ര വലിയ കേടുകേടുപാടുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുള്ള് രാസവസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ മണ്ണും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണ് ആണെങ്കിലും മരങ്ങൾ ഇപ്പോൾ വെട്ടി കളയുന്നതുകൊണ്ട് നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ അത് വളരെ വെല്ലുവിളി കാര്യങ്ങൾ ഒക്കെയാണ് പിന്നെ അതുപോലെത്തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴൽക്കിണർ അത് ഇപ്പോൾ ഭൂമീൻറെ അടിവരെ കുഴിച്ച് കുത്തി ഉണ്ടാക്കുന്ന അതൊക്കെ നമ്മുടെ ഭൂമിക്ക് കേട് തന്നെയാണ് പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ രാസവസ്തുക്കളുടെ ഉപയോഗം ആണ് മെയിൻ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ ഒരു പുല്ല് വളരുകയാണെങ്കിൽ അതിൽ കൊണ്ടുവന്ന് മരുന്ന് അടിക്കും മരുന്ന് അടിച്ചിട്ട് പുല്ല് പിന്നെ ഇതാകും അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് മണ്ണ് മണ്ണിൻ്റെ ഗുണമേന്മക്ക് വേണ്ടിയാണ് ഈ പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുവരെ ഇവര് നശിപ്പിക്കും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭൂമിയും നശിച്ചുകൊണ്ടിരിക്കുകയാണ്